ഞാൻ ഉണ്ടാക്കുന്ന ലഘു ഭക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ മുറുക്ക് ഉണ്ടാക്കാറുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് ഡ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാറുണ്ട് അതുപോലെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് പപ്പട ബോളി ഉണ്ടാക്കാറുണ്ട് അങ്ങനത്തെ ലഘുഭക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ലഘു ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ അവൽ തേങ്ങയും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് ഉണ്ടാക്കാറുണ്ട് ചായേടെ കൂടെ കഴിക്കാൻ അങ്ങനെ ലഘുഭക്ഷണങ്ങൾ അത്യാവശ്യം എല്ലാം ഉണ്ടാക്കാറുണ്ട് പിന്നെ ഒരു പാചക വിധിയെന്ന് പറയുമ്പോൾ നമ്മൾ ഇറച്ചിക്കറി വെക്കുമ്പോൾ മസാല തേച്ച് കഴിഞ്ഞ് ഈ ഇറച്ചിക്കകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ അത് നമ്മൾ സാധാരണ വെക്കുന്ന കറിയൊക്കെ കുറച്ച് കൂടി ഇറച്ചി കുറച്ച് കൂടി ജ്യൂസി ആയിരിക്കും അത് അത്ര ഇച്ചി ഇച്ചിരി കട്ടികുറവ് വരും അങ്ങനെ അത് കുറച്ച് കൂടി റ്റേസ്റ്റുണ്ടാകും കറിക്ക് അതാണ് പങ്ക് വെക്കാനുള്ള പാചക വിധി ലഘു ഭക്ഷണങ്ങൾ അത്യാവശ്യം എല്ലാം ഉണ്ടാക്കും